ഹലോ മലബാർ ജ്വല്ലറിയിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ എപ്പത്തേക്കാണ് സാർ പതിനൊന്നാം തീയ്യതി അല്ലേ ആ എട്ടാം തിയതി അല്ലേ ഓക്കെ ഓക്കെ അപ്പം എത്ര പവനാണ് എടുക്കുന്നത് ആ ഇരുപത്തഞ്ചോ അപ്പോൾ ഇങ്ങനെ എത്ര വള അങ്ങനെ കണക്കുണ്ടോ ഇത്ര വള വേണം അങ്ങനെ ഉണ്ടോ പിന്നെ എങ്ങനെയാണ് പ പൈസ നമുക്ക് അതായത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വർക്കുണ്ടോ അതോ നമ്മളായിട്ട് ചെയ്താൽ മതിയോ പുതിയ മോഡല് ചെയ്താൽ മതിയോ അങ്ങനെന്തെങ്കിലും അയച്ച് തരാം അയച്ച് തരാം ഓക്കെ ആ അപ്പം നിങ്ങള് ഒരു ദിവസം ഇങ്ങോട്ട് വരേണ്ടിവരും അത് മോളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാലും മതി ഇവിടെ എല്ലാം പുതിയ മോഡലുകളുണ്ട് നമ്മള് ഫോണില് അയക്കുന്നതിനേക്കാളും നല്ലത് നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കുകയും ചെയ്യാം അപ്പം ഏതാ നല്ലതെന്ന് അറിയാമല്ലോ ഉണ്ട് ഉണ്ട് മാനന്തവാടി ഉണ്ടല്ലോ മാനന്തവാടി മൈസൂർ റോഡിൻ്റെ അവിടെ ഉണ്ട് നമ്മുടൊരു ഷോപ്പ് ഉണ്ട് ഇപ്പം പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ തീർച്ചയായും തീർച്ചയായും സാർ കാണാൻ പറ്റും കാണാൻ പറ്റും

ആ അഡ്വാൻസ് ചെയ്യണം നമുക്ക് ആദ്യം അതായത് നമ്മള് വർക്ക് തുടങ്ങണമെങ്കിൽ ആദ്യം അഡ്വാൻസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്കിത് പുതിയ മോഡല് അതായത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും മോഡല് മോഡലനുസരിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതായത് പണിക്കൂലി ആദ്യം കുറച്ച് ഒരു പതിനഞ്ച് ശതമാനം തരണം ആ ഉണ്ടാവും ഉണ്ടാവും നിങ്ങള് ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ട് ഒരു കല്യാണത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് പൊതുവെ ഒരു ഓഫറുണ്ട് ഓഫറുണ്ട് ഒരു ദിവസം എന്നാല് മകളെയും കൊണ്ട് വരികയാണെങ്കിൽ നല്ലതായിരുന്നു നിങ്ങളെപ്പഴാണ് വരുന്നതെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ആ പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ടൊരു കട തുടങ്ങിയിട്ടുണ്ട് ഒരു ഓഫർ ഉണ്ട് അതായത് ഇത്ര പവൻ പത്ത് പവന് മേലെ എടുക്കുമ്പോൾ നമ്മള് ഒരു ഗ്രാം സ്വർണം ഫ്രീ ആയിട്ട് തരും